പാട്ടുപാടാൻ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമാണ് പാട്ട് കേൾക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇനി അനുസ്മരണീയമായ ഒരു നിമിഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പാട്ട് പാടുമെന്നൊക്കെ ഹസ്ബൻഡിന് അറിയാം പക്ഷേ പാട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടികൊണ്ട് നടക്കുന്നതല്ലാതെ അങ്ങനെ പാട്ട് കേട്ടിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ ഞാ ആ പാട്ട് പാടും എന്നറിഞ്ഞുകൊണ്ട് എന്നെയപ്പോൾ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞു എടീ അവസരം കിട്ടിയതല്ലേ ഒരു പാട്ട് പാടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയറി പാടി പാടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ള ഇപ്പോൾ പുതിയ വീട്ടിലോട്ട് വന്നതാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ പാട്ട് പാടുമെന്ന് അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എവിടെയെങ്കിലും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അവിടെ കയറ്റി പാട്ട് പാടിക്കും അവസരങ്ങളൊന്നും മിസ് ചെയ്യാറില്ല അവരോട് പോയി ചോദിച്ചിട്ട് ആ ഇങ്ങനെ ഒരു പാട്ട് പാടിക്കോട്ടെയെന്ന് ചോദിച്ചിട്ട് ഹസ്ബൻഡ് അങ്ങനെ നല്ലൊരു പ്രോൽസാഹിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അതാണ് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അപ്പം ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന ഒരു കല ഇപ്പോഴും എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എൻ്റെ വിവാഹ ജീവിതത്തിലാണെങ്കിലും എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എൻ്റെ ആ ഒരു ഒരു കലയിനെ പാട്ടു പാടാനുള്ള കഴിവിനെ എൻ്റെ മക്കളിലേക്കും കൂടി അവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് എനിക്കേറ്റവും കൂടുതൽ പാട്ട് കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ടെൻഷൻ മൂഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് പാ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സ് ആകാറുണ്ട് അപ്പോൾ അതാണ് എൻ്റെ അനുഭവം